എനിക്കേറ്റവും ഇഷ്ടം എന്നു പറയണത് മലയാണ് എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മലയും കുന്നും മലകളൊക്കെ കയറിപ്പോകാൻ എനിക്ക് ഭയങ്കര ട്രക്കിംഗ് അങ്ങനത്തെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരുപാടിയാണ് അപ്പോൾ നമ്മൾ ഈ ചില സ്ഥലങ്ങളിലെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് മണിക്കൂർ ഇങ്ങനെ മല കയറാനുള്ള സംവിധാനമുള്ള അല്ലെങ്കിൽ മലയുടെ മുകളിലേക്ക് മൂന്ന് നാല് മണിക്കൂർ കയറിപ്പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കോയമ്പത്തൂർ ഇഷേൻ്റടുത്ത് ഒരു സ്ഥലമുണ്ട് ഒരു നാലു മണിക്കൂർ നടന്നാലാണ് അതിൻ്റെ മുകളിൽ എത്താൻ പറ്റുള്ളൂ അതായത് നമ്മൾ ഏകദേശം രാവിലെ നേരത്തെ എത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗൈഡ് ഗൈഡ് ഉണ്ടാവും പക്ഷെ ആൾക്കാരിങ്ങനെ നടന്നു പോയ്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അവരോടൊപ്പം ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അവരിങ്ങനെ കൂടെ അവരുടെ കൂടെ നടന്നിങ്ങനെ പോവാം നമുക്ക് സിമ്പിളായിട്ട് അതായത് വേറെ വഴി തെറ്റാനൊന്നുമില്ല അങ്ങനെ കയറി പോവാം ആ പോണ വഴിയിൽ എന്നിട്ട് പോണ വഴിയിൽ തന്നെ നമുക്ക് ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വലിച്ച് തിന്നാം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വയ്യാണ്ടാവുമ്പോൾ കുറച്ചു നേരം ഇരിക്കാം അങ്ങനത്തെ ഒരു ഇത് എനിക്ക് അത് ഒരു സ്പെഷ്യലായിട്ട് എന്താ പറയുക കുറച്ചും കൂടി നമ്മുടെ എനർജി ബോഡിക്ക് നല്ല എനർജിയാവും നമുക്ക് ഈ കപ്പാസിറ്റി കൂട്ടും നമുക്ക് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസത്തിൻ്റെ കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും പിന്നെ നമുക്കൊരു കുറച്ചും കൂടി ബോഡി ഫ്ലെക്സിബിളാവും അങ്ങനെ കുറേ ഹെല്പ് ചെയ്യാൻ പറ്റണതാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരിത് അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേ ഇപ്പോൾ രണ്ട് മൂന്ന് മലയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി മലകൾ കയറാനാണ് എനിക്ക് താല്പര്യമുള്ളത്